ആ ഹലോ ആ എന്താണ് വേണ്ടത് ഇന്ന് ഡോക്ടറെ കണ്ടായിരുന്നോ കണ്ടില്ലേ അപ്പോൾ ശർദിലുണ്ടോ

പനിയുണ്ടോ ടെംപറേച്ചറുണ്ടല്ലേ അപ്പം എത്ര വയസ്സായി നാല്പത്തെട്ട് വയസ്സായി അപ്പോൾ ഒരു കാര്യം ചെയ്യണം ഡോളോയുടെ സിക്സ് ഫിഫ്റ്റി കഴിക്കണം ആ ഡോളോ സിക്സ് ഫിഫ്റ്റി കഴിക്കണം പിന്നെ പാൻ്റോപ്പ് ഡി ഫോർട്ടി പാൻ്റോപ്പ് ഡി ഫോർട്ടി അത് ആഹാരത്തിന് അര മണിക്കൂർ മുമ്പായിട്ടൊരെണ്ണം കഴിക്കണം പിന്നെ ഒമിറ്റിംഗുണ്ടെങ്കിൽ ആ എമിസെറ്റെന്ന് പറഞ്ഞൊരു ടാബ്ലെറ്റുണ്ട് ആ ടാബ്ലെറ്റും കൂടെ അത് രണ്ടു നേരം രാവിലെയും വൈകിയിട്ടും ഓരോന്ന് വീതം കഴിക്കണം തലവേദന അങ്ങനെയൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല ആ ബോഡി പെയിൻ അത് ഈ ഡോളോയിൽ ആ ഡോളോ കഴിക്കുമ്പോഴങ്ങ് മാറിക്കോളും പിന്നെ മൂന്ന് ദിവസം വരെ കാണും അഥവാ കുറഞ്ഞില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ കാണിക്കണം കാണിച്ചിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടേ അതിൽ പ്ലേറ്റ്ലെറ്റ്സൊക്കെ നോക്കണം ബി ആർ സിയെന്ന് പറഞ്ഞൊരു തുടങ്ങിയതിൽ അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ടെമ്പറേച്ചറ് കുറഞ്ഞില്ലെങ്കിൽ ബി ആർ സിയുടെ ടെസ്റ്റും പ്ലേറ്റ്ലെറ്റ്സും കൂടെ നോക്കണം കേട്ടാൽ ആ ആ ആ ശരി ഡോളോ ആറു മണിക്കൂർ ഇടവിട്ട് ആ ആറു മണിക്കൂറല്ല എട്ട് മണിക്കൂർ ഇടവിട്ട് ഓഹ് എട്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കണം ആ അപ്പോഴ് ആ ശരി ആ ശരി ആ